ഞാൻ കുട്ടിക്കാലം മുതൽക്കേ പാട്ടുകളൊക്കെ പാടാറുണ്ടായിരുന്നു ഞാനാദ്യമായി പാട്ടുപാടി തുടങ്ങിയതു തന്നെ അംഗൻവാടിയിൽ പഠിക്കുമ്പോഴാണ് അവിടെയുള്ള പരിപാടികൾക്കൊക്കെ പാട്ട് പാടാറുണ്ടായിരുന്നു എനിക്ക് കൊച്ചു കൊച്ചു പ്രൈസുകളൊക്കെ കിട്ടിയിരുന്നു അതുപോലെതന്നെ നമ്മുടെ ഒരു നാട്ടിൻ പ്രദേശമാണ് അപ്പോൾ അവിടെ വായനശാലകളും മറ്റുമൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടികൾക്കൊക്കെ പാടുമായിരുന്നു അങ്ങനെ നിരവധി പ്രൈസുകളൊക്കെ എനിക്ക് കുഞ്ഞുനാള് തോട്ടിട്ടേ കിട്ടിയിട്ടുണ്ട് പാട്ടും പാട്ടു പാടലിന് അതുപോലെതന്നെ പിന്നീട് ഞാൻ വലുതായപ്പോൾ നമ്മൾ സിനിമ ഗാനങ്ങളിലേക്ക് ഒരു താല്പര്യം ഒക്കെ വന്ന് ഒര് പുതിയ സിനിമ വന്നു കഴിഞ്ഞാല് അതിൻ്റെ പാട്ടുകൾ മനോഹരമായ പാട്ടുകളൊക്കെ കേട്ടിട്ട് അതിൻ്റെ വരികൾ പഠിച്ച് ആ പാട്ടുകള് നന്നായി പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്ന സ്റ്റേജുകളിലൊക്കെ പാടാറുണ്ടായിരുന്നു പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ അവിടെയുള്ള ഏതൊരു പരിപാടിയിലും എൻ്റെ ഒരു പാട്ട് എപ്പോഴും ഉണ്ടാകും അതുപോലെതന്നെ ഇപ്പോഴും എനിക്കൊരു വേദിയിൽ പാടുന്നതിനോ ഇതിനോ ഒന്നുമൊരു പേടിയോ ഒന്നും ഇല്ല ഞാൻ കുഞ്ഞുന്നാളിലെ പാട്ട് പാടുന്ന ഒരാളായത് കൊണ്ടുതന്നെ എനിക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ വളരെ ജീവനായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് പാട്ട് കേൾക്കുന്നതും പാട്ട് പാടുന്നതും